ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അതായത് സർക്കാർ ഗതാഗതംന്ന് പറയുന്നേ നമുക്കിപ്പോൾ ബസ്സുണ്ട് ട്രെയിനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സർക്കാരിൻ്റെ ഒരു ഗതാഗതം തന്നെയാണ് പിന്നെ ആളുകള് ഇതിലൂടെ യാത്ര ചെയ്യാനിഷ്ട്ടപ്പെടുന്നുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഒരുപാട് അതായത് പിന്നെ ബസ്സ്ന്നൊക്കെ പറയണങ്കിൽ നമുക്ക് അതായത് നമുക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങള് അതായത് നമുക്ക് മറ്റെ ബസ്സിലാണെങ്കിലിപ്പോൾ നമ്മുക്കിപ്പോൾ ജോലിക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കെല്ലാവർക്കും വീട്ടില് വണ്ടി വേണന്നൊന്നും ഇല്ല അപ്പന്ന് വച്ചിട്ടുണ്ടെങ്കി ബസ്സൊക്കെ നമുക്ക് വലിയൊരു സൗകര്യം തന്നെയാണ് ഇപ്പോൾ ഗവൺമെന്റ് നമുക്ക് തരുന്നൊരു വലിയൊരു സൗകര്യം തന്നെയാണ് പിന്നേന്ന് വച്ചിട്ടുണ്ടെ അതുപോലെ തന്നെ ട്രെയിന് കാര്യങ്ങളൊക്കെ അത് നമുക്ക് നല്ലൊരു സൗകര്യം തന്നെയാണ് പിന്നെന്ന് വച്ചിട്ടുണ്ടെങ്കില് ആളുകളിതില് യാത്രചെയ്യാനൊക്കെ ഒരുപാടിഷ്ട്ടപ്പെടുന്ന ആൾക്കാര് ഒരുപാടുണ്ട്